പോലീസ് സ്റ്റേഷൻ ആണോ ഞാൻ അത് കേരള എക്സ്പ്രസ് യാത്ര ചെയ്യുന്നൊരു യാത്രക്കാരത്തി ആയിരുന്നേ എൻ്റെ മൊബൈൽ ഒന്ന് മിസ്സ് ആയി പോയി ട്രെയിനിൽ അപ്പോൾ അതിനൊരു കംപ്ലയിൻറ്റ് തരാനായിട്ട് വിളിച്ചതാണ് ഞാൻ കോട്ടയത്തിനും ചിങ്ങവനത്തിനും ഇടയ്ക്ക് വെച്ചാണ് എൻ്റെ കയ്യിൽനിന്ന് മിസ്സ് ആയത് വേറെ ഉണ്ട് എൻ്റെ എൻ്റെ കസിൻസ് ഒന്നുമല്ല വേറെ അല്ലാത്ത യാത്രക്കാരുണ്ട് അവരുടെ കയ്യിൽനിന്നാണ് ഞാൻ നമ്പര് മേടിച്ച് വിളിക്കുന്നത് ഇപ്പഴേ എൻ്റെ ഫോൺ നമ്പര് വേറെയാണ് ആ നമ്പരിലാണ് ആ ഫോണ് ആണ് കാണാതെ പോയിരിക്കുന്നത് ആ നമ്പറ് പറയാം നൈൻ സീറോ സിക്സ് വൺ നൈൻ ഫൈവ്

യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷേ ഫോൺ വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് ആ ആ ഈ നമ്പരിലോട്ട് വിളിച്ചാൽ മതി ആ ആ ഈ ആ ആ ആ അത് വന്ന് കഴിയുമ്പോൾ ഞാൻ തന്നോളാം ആ ആ ആ ആ ആ ആ ആ ആ ഓക്കേ ഓക്കേ താങ്ക് യു